ഞാൻ പുതിയതായിട്ട് ഒരു ഹെഡ് സെറ്റ് വാങ്ങിയായിരുന്നു പറയാതിരിക്കാൻ വയ്യ നല്ല അടിപൊളി പ്രോഡക്റ്റ് ആണ് നല്ലവണ്ണം കേൾക്കാൻ പറ്റുന്നുണ്ട്ന്ന് വെച്ചാൽ പുറത്തത്തെ സൗണ്ട്സൊന്നും നമ്മളെ ഡിസ്റ്റബ് ചെയ്യുന്നില്ല നല്ല രീതിയിൽ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് ഹെഡ് സെറ്റ് നല്ല ബ്ലൂറ്റൂത്ത് ആണ് ബ്ലൂടൂത്ത് ഹെഡ് സെറ്റാണ് നമുക്ക് ഈ അതിൻറെ വയറിനൊക്കെ കട്ടിയുള്ളതാണ് നല്ല ഒരു ഹെഡ് സെറ്റ് ആണ് പിന്നെ അത് നമ്മൾ പറഞ്ഞ സൗണ്ട് നല്ല പക്കയായിട്ട് ക്യാച് ചെയ്യുന്നുണ്ട് ഞാനതിന് നൂറിലൊരു നൂറു മാർക്ക് തന്നെ ഞാനതിന് കൊടുക്കും അത്രയ്ക്കും നല്ല ഹെഡ് സെറ്റാണ് നമുക്ക് ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആണത് ഭയങ്കര അതിൻ്റെ മെറ്റീരിയൽസൊക്കെ ഭയങ്കര സോഫ്റ്റാണ് പറയാതിരിക്കാൻ വയ്യ

ക്ലിയറായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഈ ബ്ലൂടൂത്ത് ഹെഡ് സെറ്റ് നൈസാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും വാങ്ങണം പിന്നെ ഇതിൻ്റെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയായിട്ട് എനിക്ക് തോന്നിയത് ചാർജിങ് കപ്പാസിറ്റിയാണ് ഇത് നമുക്ക് തേട്ടി ഫോർ ഹവേഴ്സ് ചാജിങ് കെപ്പ കെപ്പാസിറ്റി തരുന്നുണ്ട് നമ്മൾ അത് ഡെയിലി ഒരു വൺ ഹവറൊക്കെ ചാർജ് ചെയ്യ്താൽ തന്നെ നമുക്ക് അതൊരു തേട്ടി ഫോർ ഹവേഴ്സ് വരെയൊക്കെ നമുക്ക് യുസ് ചെയ്യാൻ പറ്റും നമ്മളിപ്പം ഓഫ് അക്കീല്ലെങ്കിലും ബ്ലൂടൂത്ത് പെർമനൻ്റ്ലി ഓഫ് ആക്കിലെങ്കിലും നമ്മളൊരു